ആ നമസ്കാരം സാറെ ആ സാറെ ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് കോച്ചിംഗിന് പോണം പറഞ്ഞിട്ട് ആണ് വന്നത് അപ്പോൾ ഇവിടുത്തെ ക്യാമ്പസ് കാര്യങ്ങൾ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് സാറെ ഏ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ് എടുക്കുന്നുണ്ടെന്ന് ഇവിടെ ആരും ഇപ്പോൾ ചേർന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ ആ അത് സാർ സാറെ ആ കഴിഞ്ഞ തവണ ഫുട്ബോൾ കപ്പിന് ആ ഇതിന് ആ കഴിഞ്ഞ തവണ സ്കൂൾ ടീമിൽ കളിച്ചു സെലക്ഷൻ്റെ കാര്യം പിന്നെ വീട് ഓക്കെ സാറെ ഇപ്പോൾ നമ്മൾ ക്യാമ്പ് വൈകുന്നേരം ആക്കിയോ രണ്ട് നേരം ഉണ്ടോ സാറെ ക്യാമ്പിൻ്റെ അതെ അതെ ക്ലാസ്സും ഉണ്ട് അപ്പോൾ രാവിലത്തെ കാര്യം വരാൻ കുറച്ച് ഡൗട്ട് ആണ് ഓക്കെ വൈകുന്നേരം അപ്പോൾ എത്ര മണി തൊട്ടാണ് സാറെ ഓക്കെ എല്ലാ ദിവസവും റെഗുലർ ആയിട്ടാണോ അല്ലേ ഇടവിട്ട് ഓ അങ്ങനെ ആണല്ലേ ഓ ആ ആ ഓ വേറെ വേറെ ആയിട്ട് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് സംഭവം പ്രാക്ടീസും കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസ് അത് ഒക്കെ വരുന്നു സ്ട്രെച്ചസ് ഒന്നും കറക്റ്റ് ആയി ചെയ്യാണ്ട് അധിക അപ്പോൾ ഭയങ്കര അത് ആണ് നമ്മൾ കളിക്കും കളിച്ച് കഴിഞ്ഞ് സ്ട്രെച്ചസ് ഒന്നും വർക്ക് ഔട്ട് ഒന്നും ചെയ്യാത്ത കാരണം ഭയങ്കര ഇഞ്ചുറിയും തെങ്ങയൊക്കെയായിട്ട് കഴിഞ്ഞ തവണ ഒക്കെ വീടിൻ്റെ അവിടെ ഈ ചുമ്മാ തട്ടി കളിക്കുക ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ സ്പോർട്ട്സ് ടീമിൽ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ടെൻത്തിൽ ഒക്കെ പഠിക്കുമ്പോഴേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വീടിൻ്റെ അവിടെ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ കളി കഴിഞ്ഞിട്ട്

ഇതിപ്പോൾ നമ്മള സ്റ്റാർട്ടിംഗ് ഫീസിൻ്റെ എങ്ങനെയാണ് സാർ റേറ്റ് ഓ ഓക്കെ പിന്നെ മന്ത്ലി ആണ് അല്ലേ ഓ പിറ്റത്തേത് ആ മറ്റേ ആ ഇപ്പോൾ ഡിസ്ട്രിക്ട് ടീമിൽ കളിക്കുന്ന അജ്മൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഞാൻ അതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു ആ വേറെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് ഇന്ന മാതിരി കളിക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടാലൻറ്റ് അക്കാദമിയിൽ പോയാൽ മതി അവിടെ സാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഡിഫെൻസ് ആണ് കളിക്കുന്നത് ബാക്കിലാണ് കളിക്കുന്നത് അതാണ് പോസ്റ്റ് ആ ഓക്കെ ഞാൻ എന്നാൽ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് വരാം സാറെ വൈകുന്നേരം ക്ലാസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന വഴി വരാം ആ ശരി ആ എന്നാൽ ശരി സാറെ ആ അത് തിങ്കളാഴ്ച്ച വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരേ ആ സാർ ഉണ്ടാവില്ലേ വൈകുന്നേരം ഇവിടെ അല്ലേ വേറെ ആ ഓക്കെ ശരി എന്നാൽ ആ എന്നാൽ ശരി സാർ ഞാൻ വൈകുന്നേരം ക്ലാസ്സ് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോളേ ഇവിടെനിന്ന് ആണെങ്കിൽ ബസ്സും അടുത്ത് ആണ് ആ ഓക്കെ ആ എന്നാൽ ശരി ആ ശരി